നൃത്തങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരീതിയിലുള്ള നൃത്തങ്ങളുണ്ട് ഒന്നാമത് പറയുകയാണെങ്കിൽ മോഹിനിയാട്ടമുണ്ട് പിന്നെ കുച്ചിപ്പൊടിയുണ്ട് ഭരതനാട്യമുണ്ട് ഇങ്ങനത്തെ പലതരം എന്താ പറയുക ഡാൻസുകളുണ്ട് ഓട്ടം തുള്ളൽ അങ്ങനത്തെ പലതരം ഡാൻസുകളുണ്ട് പക്ഷേ ഇതൊന്നും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇതൊന്നും വലിയ താൽപര്യം ഇല്ലാത്ത കളികളാണ് കളിക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് അടിപൊളി ഡാൻസുകളും അടിപൊളി പാട്ടുകളും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാലാണ് അവർക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് മനസ്സു ഫ്രീ ആക്കണമെങ്കിൽ തന്നെ ഒരു അടിപൊളി ഡാൻസോ അടിപൊളി പാട്ടോ കേൾക്കണം ഇങ്ങനെ കേട്ടു കഴിഞ്ഞാലാണ് ഇവരെന്തു ചെയ്യുക ഇപ്പോൾ ഒരു ഗാനമേള നടക്കുകയാണെങ്കിൽ അവിടെ പാട്ടുപാടുകയാണെങ്കിൽ പുറത്ത് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണെന്നു വച്ചുകഴിഞ്ഞാൽ ഈ ഡാൻസൊക്കെ കാണുമ്പോൾ പലതരം സ്റ്റെപ്പുകൾ ഇവർക്ക് കാണാം അതായത് റോബോട്ടിക് സ്റ്റൈൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് റോബോട്ടിക്ക് സ്റ്റൈൽ സ്റ്റെപ്സൊക്കെ പിന്നെ ആക്രോബയോറ്റിക്കെന്നു പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടം ഒരു വെറൈറ്റി സ്റ്റെപ്സ് ഒക്കെ ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം പണ്ടത്തെ ആൾക്കാർക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം അങ്ങനത്തെ ടൈപ്പ് കാണാനാണ് പണ്ടത്തെ ആൾക്കാർക്ക് ഇഷ്ടമെങ്കിലും ഇപ്പോഴുള്ളവർക്ക് ഇങ്ങനെയാണ് താല്പര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്